ഞാൻ ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കാനാ ഉദ്ദേശിക്കുന്നുണ്ട് അത് ധാന്യങ്ങൾ പൊടിക്കുക്കയും വറുക്കുക്കയും ആട്ടി ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ആട്ടിയ എണ്ണ കൊപ്ര എന്നിവ ആട്ടി കൊടുക്കുന്നതുമായ ഒരു സംരംഭമാണ് ഞാനുദ്ദേശിക്കുന്നത് അതിന് എനിക്ക് പുതിയ ഒരു കണക്ഷൻ ആവശ്യമാണ് അതിനെ ഏറ്റവും അടുത്തുള്ള സേവന കേന്ദ്രം ഞാൻ ഞാൻ സന്ദർശിക്കുന്നുണ്ട് അതിൽ ആവശ്യമായ വിശദശാംശങ്ങൾ എനിക്ക് പുതിയൊരു കണക്ഷനുവേണ്ടി എന്തെല്ലാം വേണം എന്നുള്ള എനിക്ക് പേപ്പർ ഞാൻ സമർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം സമർപ്പിക്കുന്നുണ്ട് കൂടാതെ അതിന് വേണ്ട ബിൽഡിങ്ങ് പഞ്ചായത്തിൻ്റെ സാങ്ഷൻ മുൻസിപ്പാലിറ്റി സാങ്ഷൻ എന്നിവയെല്ലാം അത്യാവശ്യമാണ് അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഇലക്ട്രിസിറ്റി ബോഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും മുന്നെ എനിക്ക് തരുവാൻ ഞാനാഗ്രഹിക്കുന്നു എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനതിന് വേണ്ടി അപേക്ഷ അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷ സമർപ്പിക്കുകയാണ് എല്ലാ സഹായങ്ങളും എനിക്ക് നിങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് കൂടാതെ എല്ലാ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റ് പ്രവർത്തനങ്ങളുടെയെല്ലാം ഉദ്ഘാടനത്തിനും നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്നോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം